ഞാൻ ആദ്യമായി നീന്തൽ മത്സരത്തിന് പോയപ്പോൾ എനിക്കവിടെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എനിക്ക് വീട്ടിൽ നിന്ന് എനിക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് നല്ല ഒരു എനിക്ക് നല്ല ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ ജയിക്കും ജയിക്കും എന്ന് ഞാൻ അവിടെ മത്സരത്തിന് അവിടെ ആ സ്ഥലത്ത് ചെന്നപ്പോൾ എനിക്ക് അത് കുറയുകയും എനിക്ക് ഒരു വിശ്വാസക്കുറവ് വന്നു അവിടെ എന്നേക്കാൾ നല്ല നീന്തൽ അറിയുന്നവരും ഉണ്ടെന്നെനിക്കൊരു തോ ഉൾവിളി തോന്നി അവരൊക്കെ പ്രൊഫെക്ഷണലി എല്ലാം ചെയ്ത് തുടങ്ങിയവരാണ് അവർക്കൊക്കെ നീന്തൽ അറിയാം അത് എങ്ങനെയാണ് നീന്തേണ്ടത് അവരൊക്കെ കണ്ടാൽ തന്നെ പറയാം നമുക്ക് അവർ ജനിച്ച് വീണതേ വെള്ളത്തിലാണെന്ന് എനിക്കവിടെ അവ എങ്ങോട്ട് പോകണമെന്നോ അവിടെ ആരും പരിചയമോ ഒന്നും എനിക്കറിയില്ല ഇത് എങ്ങനെ നമുക്ക് പേര് കൊടുക്കേണ്ടതും നമുക്ക് എങ്ങനെയാണ് ഇവർ നമ്മളെ വിളിക്കുന്നതും നമ്മൾ പങ്കെടുക്കാൻ വേണ്ടിയിട്ടും അതൊന്നും എനിക്ക് എങ്ങനെയാണെന്ന് പോലും എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ലായിരുന്നു ഒരു ആളുടെ അടുത്ത് ഒരു സമയം ചോദിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ലായിരുന്നു കാരണം അത് മഹാരാഷ്ട്ര എന്നുപറഞ്ഞ സ്ഥലത്താണ് നടക്കുന്നത് എനിക്കവിടെ ഹിന്ദി ഒന്നും അറിയാത്തതുകൊണ്ട് മറ്റു ഭാഷകളും എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി എനിക്ക് അങ്ങനെ നീന്താൻ എനിക്ക് നീന്തൽ ഇപ്പം ചെയ്യണമെന്ന് നല്ല ഒരു ആഗ്രഹമാണ് കാരണം എനിക്ക് ഒരു എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കാരണം നീന്തൽ ചെയ്യുന്നത് എനിക്ക് നീന്തൽ ഞാൻ നീന്തലിലോട്ട് രണ്ടാമത്തെ പ്രാവശ്യമാണ് വീണ്ടും നീന്തലിലേക്ക് വരുന്നത് കാര്യം ആദ്യം എനിക്ക് നീന്തൽ ചെയ്യാൻ നല്ല ഒരു പേടിയും ഭയവും ഉണ്ടായിരുന്നു എൻ്റെ കുഞ്ഞമ്മയുടെ ഞാൻ കാരണം ഉണ്ടായ ഒരു അബധം കൊണ്ട് അതുകൊണ്ട് എനിക്ക് നല്ല പേടിയാണ് രണ്ടാമത് ഞാനിപ്പം എനിക്ക് ഈ പഠിത്തം അതുമൂലം ഉണ്ടാകുന്ന ബാധ്യതകളും അങ്ങനെ ഒക്കെ എനിക്ക് വരുമ്പോൾ എനിക്ക് നല്ല മനസ്സിനൊരു ആശ്വാസവും ഇല്ല ഈ ആശ്വാസം കുറയ്ക്കാണ് വഴിയായിട്ടാണ് ഞാൻ നീന്തലിനെ നീന്തലിലേക്ക് ഞാൻ സമീപിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഈ നീന്തൽ കൊണ്ട് ചെയ്യുമ്പോൾ എനിക്ക് ഉണ്ടാവുന്ന ഗുണങ്ങൾ എന്ന് വയ്ക്കുമ്പോൾ നീന്തൽ നീന്തൽ ചെയ്യുമ്പോൾ എനിക്കുള്ള ബുദ്ധിമുട്ട് എന്ന് വ് എനിക്ക് നല്ല ഗുണങ്ങൾ എന്നു വെച്ചാൽ എനിക്ക് നല്ല ശരീരത്തിനു നല്ല ആശ്വാസമാകും വെള്ളത്തിലൊക്കെയാണ് നീന്തുന്നത് കാരണം ആ വെള്ളത്തിലെ തണുപ്പൊക്കെ കാരണം നല്ല രക്തം ഓട്ടം നല്ല പ്രവർത്തിക്കുകയും തലച്ചോറിലേക്ക് നല്ല രക്തങ്ങൾ വരുകയും അതുമൂലം എനിക്ക് നല്ല ഒരുപാട് മനസ്സിന് ആശ്വാസം ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് എല്ലാവരുടെ അടുത്തും ഒരു മനസ്സ് തുറന്നെനിക്ക് സംസാരിക്കാനും ഇപ്പം എനിക്ക് നല്ല ഒരു ആശ്വാസവും വരുന്നുണ്ടെനിക്ക് അത് അങ്ങനെ പല പല ഗുണങ്ങളാണെനിക്ക് ഉണ്ടാകുന്നത് എനിക്ക്